വയനാട് ജില്ലയിലെ ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണം ഒക്കെയായിട്ട് പറയാനാണെങ്കിൽ വയനാട് ജില്ലയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗവൺമെൻറ്റ് എന്തുകൊണ്ടും അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ് പറയുക കൂടുതലും എന്താണ് പറയുക്ക ഇവിടെ മൃഗങ്ങളും കാര്യങ്ങൾ അവയൊക്കെ ഉള്ളതുകൊണ്ട് ഫോറസ്റ്റ് ഏരിയ കൂടുതൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം വംശനാശം വരുന്ന ജീവികളെ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അത് വളർത്തിക്കൊണ്ടു വരികയും പിന്നെ അവയ്ക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അത് നല്ലൊരു രീതി തന്നെയാണ് കാരണം ഇപ്പോൾ വയനാട് ജില്ലയിലെ ഫോറസ്റ്റ് ഏരിയകളിൽ ആവാസവ്യവസ്ഥയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും മറ്റു ജീവികളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ രാത്രി യാത്ര നിരോധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കേ ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് പറയുക ചില പ്രാദേശിക ഇതിൽ നമുക്ക് പരിസ്ഥിതിയിലൊക്കെ നല്ല ഇത് വരുന്നുണ്ട് ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഇതാക്കിയത് കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ അവിടെ വളർന്നുവരുന്നുള്ളത് കൊണ്ട് വയനാട് ജില്ല ഓൾമോസ്റ്റ് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്